ഞാൻ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന സമയത്ത് ഒരു മാത്സ് പിരീഡ് കണക്ക് മാഷ് കയറി വരുമ്പോൾ ഞാനൊരു ടെസ്റ്റ് ബുക്കിനകത്ത് പാട്ടുപുസ്തകം വെച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു പുറകിൽ നിന്ന് സാർ വന്ന് പാട്ടുപുസ്തകം എടുത്തുകൊണ്ട് പോയിട്ട് ക്ലാസ് സമയത്താണോ ഇങ്ങനെയുള്ളതൊക്കെ പാട്ട് ഇരുന്നു നോക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ വഴക്കു പറഞ്ഞിട്ട് ഞങ്ങളുടെ ക്ലാസിലെ പിരീഡ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോയി അത് വേറൊരാളിൻ്റെ പാട്ട് പുസ്തകമായതുകൊണ്ടെനിക്ക് അത് തിരിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ ഞാനാ സാർ പഠിപ്പിക്കുന്ന ക്ലാസിൽ ചെന്നിട്ട് പാട്ടുപുസ്തകം ചോദിച്ചപ്പോൾ എന്നെ കുറെ വഴക്ക് പറഞ്ഞിട്ട് പറഞ്ഞു നിനക്കാ പാട്ടുപുസ്തകം ഞാൻ തരാം പക്ഷേ ക്ലാസ്സ് സമയത്ത് അത് ഉപയോഗിച്ചതുകൊണ്ട് ഒരു പണിഷ്മെൻറ്റ് ഈ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഈ ക്ലാസ്സിൽ കയറി നിന്ന് നീ ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് പാട്ട് കാണാതെ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ടുപുസ്തകത്തിൽ നോക്കി പാടിയാൽ മതി പാടിക്കഴിഞ്ഞിട്ട് പുസ്തകവും കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടന്മാരുടെ മുമ്പിൽവെച്ച് ഞാൻ ചമ്മലോടെ ആ പാട്ടുപുസ്തകത്തിൽ വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ പാതിരാവായ നേരം എന്ന പാട്ട് ഞാൻ പാടി അപ്പം ആദ്യമൊക്കെ ഞാൻ പാടാൻ കയറിയപ്പം എന്നെ കളിയാക്കി ചിരിച്ച ചേട്ടന്മാർ ഞാൻ പാടിത്തുടങ്ങിയപ്പോൾ അവർ സൈലൻറ്റായി ഞാൻ പാട്ടുപാടിക്കഴിഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ട് അവർ കൈയ്യടിക്കുകയും സാറിനും വലിയ സന്തോഷമാവുകയും ചെയ്തു ഞാൻ സന്തോഷത്തോടെ ക്ലാസ്സിൽ നിന്നിറങ്ങി പാട്ടുപുസ്തകം തിരിച്ച് എൻ്റെ കൂട്ടുകാരിക്ക് കൊണ്ടുക്കൊടുക്കുകയും ചെയ്തു അങ്ങനെ സ്കൂളിൽ ആനുവൽ ഡേ നടക്കുന്ന സമയത്ത് സാറെന്നെ സ്റ്റേജിൽ കയറി പാടാനൊരവസരം തരുകയും അതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ വേറൊരു ക്ലാസിലെ തിരുവാതിരയ്ക്ക് ഒരു പാട്ടുപാടാൻ അവരെന്നെ ഏൽപ്പിക്കുകയും ഞാൻ ആ പാട്ടുപാടി ആ തിരുവാതിരയ്ക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു അങ്ങനെ പാട്ടിനെക്കുറിച്ച് ഓർക്കുമ്പോളുണ്ടായിരുന്ന അനുഭവം ഇതാണ് ഞാൻ സന്തോഷത്തോടെ ഇവിടെ പങ്കുവെയ്ക്കുന്നു